ഇന്നത്തെ സമൂഹത്തിൽ നിയമപരമായ രേഖകളുണ്ടാക്കുന്നതിന് ഒരുപാട് പ്രയാസമാണുള്ളത് എന്തെങ്കിലുമിപ്പോൾ കൂടുതലും ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജനന സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കാനോ പിന്നെ പ്ലസ് ടു പത്താം ക്ലാസിൽ എസ് എസ് എൽ സി ബുക്ക് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാൽ റേഷൻ കാർഡ് പോലുള്ളവയൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ ഒരുപാട് രേഖകളൊക്കെ ആവശ്യമാണ് ആധാർ നമ്പർ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ യു പി എ നമ്പർ അങ്ങനെയുള്ള ഒരുപാട് നമ്പറുകളും കുറേ ആവശ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഡേയ്റ്റ് ഓഫ് ഇതിനൊക്കെയാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിനൊക്കെ ആണെങ്കിൽ ഡേയ്റ്റ് ഓഫ് ബർത്തും എവിടെയാണ് ജനിച്ചത് എന്നൊക്കെ അറിയാൻ അവരുടെ എവിടെയാണ് ജനിച്ചത് ആ സ്ഥലത്തുള്ള ഒരു രേഖ അവർക്ക് കിട്ടണം എന്നാലും അത് കിട്ട് ആ രേഖ കിട്ടിയാലും പിന്നെ നമുക്ക് ഫസ്റ്റ് ബി സി ജിയൊക്കെ എടുത്ത ആ ഒരു പേ പേപ്പർ അങ്ങനെയുള്ള എന്തെങ്കിലും രേഖകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവരത് എക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി തരികയുള്ളൂ